ഇപ്പോൾ പാത്രങ്ങൾ കഴുകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കരിപ്പാത്രം ഒക്കെയാണെങ്കിൽ കൂടുതൽ നമ്മൾ വെണ്ണീര് അതായത് അടുപ്പിൽ ഉള്ള ചാരം ഉപയോഗിച്ച് നല്ല ചകിരിയിൽ കഴുകുമ്പോഴാണ് കൂടുതലയിട്ട് വൃത്തി വരുക സോപ്പിട്ട് കഴുകിയാലും വൃത്തി വരില്ല എന്നല്ല കൂടുതലും പണ്ട് തൊട്ടേ അങ്ങനെയുള്ള ഒരു ഇതിലാണല്ലോ നമ്മൾ നമ്മൾ കണ്ടു പഠിച്ചത് ഞാൻ അങ്ങനെയാണ് കഴുകാറ് പിന്നെ മറ്റുള്ള പാത്രങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അവിടെ എന്തെങ്കിലും ലിക്വിഡ് കാര്യങ്ങൾ ഉണ്ടാവും പാത്രം കഴുകാനായിട്ട് അല്ലെങ്കിൽ എന്നുവെച്ചാൽ സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് കാര്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ ഇത്തിരി സോപ്പുപൊടി ഒക്കെ ഉപയോഗിക്കാറുണ്ട് പിന്നെ അതും ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്തിരി ചാരമുപയോഗിച്ച് കഴുകാറുണ്ട് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം പാത്രം വൃത്തിയാകുകയൊക്കെ ചെയ്യും ഇപ്പോൾ എണ്ണമയമുള്ള പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും സോപ്പിട്ട് കഴുകിയാൽ മാത്രമേ അത് വൃത്തിയാകുകയുള്ളൂ ഇപ്പോൾ നമ്മൾ വെറുതെ അല്ലാത്ത പാത്രങ്ങളൊക്കെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ പുട്ട് കഴിച്ചു വേറെ കറിയൊന്നും കൂട്ടിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച് സോപ്പ് ഒന്നും ഇടാണ്ട് കഴുകിയാൽ അത് വൃത്തിയാക്കും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടങ്കിൽ നമ്മളെണ്ണമയമുള്ളപ്പോൾ ചിക്കൻ കറി അല്ലെങ്കിൽ ഇപ്പോൾ പഴംപൊരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് അതായത് കഴിക്കുവാണെങ്കിൽ തന്നെ അതില് എണ്ണ പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ സോപ്പിട്ട് കഴുകിയാൽ മാത്രമേ അത് വൃത്തിയാവുകയുള്ളൂ